ഇരുപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുപ്പത് മൂന്ന് ഇരുപത്തി ഒന്ന് പതിനാല് മുന്ന് ഇരുപത്തി രണ്ട് പിന്നെ ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തി മൂന്ന് പിന്നെ പതിനഞ്ച് ഏഴ് ഇരുപത്തി നാല്